നമ്മളിപ്പോൾ ഒരു പാട്ടു പാടുമ്പോൾ അത് എന്നാ സന്തോഷത്തോടെയാണ് നമ്മളിപ്പം ഒരു പാട്ടു പാടുന്നെങ്കിൽ ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഇപ്പം നമ്മളൊരു പാട്ടാസ്വദിച്ചാണ് പാടുന്നെങ്കിൽ നമ്മുടെ മുഖത്തറിയാൻ പറ്റും ഇപ്പം മറ്റുള്ളവർക്കു നമ്മൾ ആ ഒരു പാട്ട് പാടിക്കൊടുക്കുമ്പം അതെങ്ങനെയാണാകർഷിക്കുന്നത് വെച്ചു നമ്മുടെ ആ ഒരു പാട്ടിൻ്റെ ഈണം കൊണ്ടും നമ്മുടെ ശബ്ദ മാധുര്യം കൊണ്ടും പിന്നെ നമ്മൾ പാട്ടു പാടുമ്പം നമ്മൾ താളം പിടിക്കുന്ന ആ ഒരു രീതികളൊക്കെക്കൊണ്ടാണ് നമുക്ക് നമ്മുടെ എന്നാൽ പാടുമ്പം നമ്മുടെ മുഖം ഭാവങ്ങൾ ശൈലിയൊക്കെ മാറാൻ തുടങ്ങുന്നത് അപ്പം മറ്റുള്ളവർക്കു നമ്മളോടാകർഷണം തോന്നും അപ്പം നമുക്കു നമ്മുടെ പാട്ടവർക്ക് കേൾക്കാനാണെങ്കിലും എന്തായാലും കേൾക്കാനുള്ളൊരിഷ്ടം തോന്നും പാട്ട് പാടുമ്പം പര പോരായ്മകളൊക്കെ വരും ഇപ്പം പാടുന്നതിനായാലും ന്ന ചിലപ്പം ഹൈ പിച്ച് ആകാം പാട്ട് ലോ പിച്ച് ആകാം അല്ലെ നമുക്ക് ചിലപ്പം സൗണ്ടിൽ വ്യത്യാസം വരും ശൗണ്ട് സൗണ്ടിലെന്തെങ്കിലുമൊക്കെ അടപ്പോ കാര്യങ്ങളോ പനിയായിട്ടു വന്നിരിക്കുവാണേ സൗണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നമുക്കു പാടുമ്പം വരും പക്ഷെ ഏതൊരു മനസ്സിലേറ്റവും സന്തോഷമേതൊരു സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്തായാലും മനസ്സിലേറ്റവും നല്ല സന്തോഷം കൊണ്ടു വരുന്നൊരു കാര്യമെന്നു വെച്ചു കഴിഞ്ഞാൽ അതു പാട്ടാണ് കാരണം പാട്ടു പാടുമ്പം നമ്മുടെ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ വിഷമങ്ങളായാലും സങ്കടങ്ങളായാലും നമ്മൾ മറക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം പാട്ടു പാടുന്നത് ഇപ്പം ഓരോ വരിയിലാണേൽ പാട്ടിൻ്റെ ആ ഒരർത്ഥമുണ്ട് ആ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പാട്ടു പാടുമ്പോൾ ആ പാട്ട് ഉള്ളറിഞ്ഞു നമ്മൾ പാടുകയാണേ ആ ഒരു സന്തോഷം നമ്മുടെ മുഖത്തറിയാൻ പറ്റും ആ ഒരു ആ പാട്ടു പാടുന്നതിലൂടെ മറ്റുള്ളവരായാലും അതാസ്വദിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം നമ്മളൊരു വേദിയിൽ പാടാൻ പോയാലും വേദിയിലും നമ്മളെ ജനങ്ങൾ നിൽക്കുമ്പം അവർ തരുന്ന നമുക്ക് പ്രോത്സാഹനങ്ങൾ അവർ തരുന്ന നമ്മുടെ കൈയ്യടി കാരണം നമ്മുടെ നമുക്കപ്പം ഒരു ഒരു ഇതു കാണും സ ഇതു കാണും എന്താ ആ പാട്ടിങ്ങനെ പാടുന്ന ഇങ്ങനെ പാടിയപ്പം എനിക്ക് ഇപ്പം എനിക്ക് ഒരെനർജി കിട്ടി അവരിങ്ങനെ പാടുന്ന പാടിയാലെനിക്കിപ്പം ഇത്ര എനിക്കു നല്ലതു പോലെ പാടാൻ പറ്റും എൻ്റെ പാട്ടു കൊണ്ടു ഞാൻ മറ്റുള്ളവരെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവർക്കെൻ്റെ പാട്ടിനോടത്രയ്ക്കിഷ്ടമുള്ളതുകൊണ്ടാണവരെന്നെ ഇത്ര ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നു ഞാനോർക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ പാട്ടിന് ഓരോ ഭംഗിയും ഓരോ ഈണങ്ങൾ കൊടുത്തു വേണം നമ്മൾ പാടാൻ അപ്പം നമ്മൾ പാടുമ്പം സത്യം പാട്ടു പാട്ടെന്നു പറഞ്ഞത് ഏറ്റവും വലിയൊരനുഗ്രഹമുള്ളൊരു കാര്യമാണ് കാരണം അതു പാടാൻ കിട്ടുന്നതു വെച്ചു കഴിഞ്ഞാൽ ചുരുക്കം ആളുകൾക്ക് മാത്രമുള്ളപ്പം അങ്ങനത്തൊരു ഭാഗ്യം ദൈവം തരും അതു നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തി പാ പാട്ടു പാടണമെന്നാണാ പാ ആഗ്രഹിക്കുന്നത് അപ്പം ആ പാട്ടു പാടുമ്പം ഓട്ടോമാറ്റിക്കല്ലി നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം നമ്മുടെ അതു നമ്മുടെ മുഖത്തറിയാൻ വന്നാൽ പറ്റും അതു ജനങ്ങൾക്കായാലും കൂടുതലും ജനങ്ങൾക്കായിരുന്നത് അനുഭവപ്പെടാൻ വേണ്ട കടമ ഒരു വ്യക്തി പാടുമ്പോൾ ആ വ്യക്തി ഉള്ള് മനസ്സു തുറന്നാണ് പാട്ടു പാടുന്നത് മനസ്സിലൊരു കള്ളവുമില്ലാതെ കളങ്കമില്ലാതെ ആ ഓരോ പാട്ടിൻ്റെ വരികളുടെ ഈണവും അതിൻ്റർദ്ധവുമെല്ലാം മനസ്സിലാക്കിയാണ് പാട്ടു പാടുന്നത് അങ്ങനെ പാടുമോ അതു ജനങ്ങളെ നമ്മൾ കൂടുതൽ ആ ഒരു ഈണമെത്തിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പാടുന്നതനുസരിച്ച് ജനങ്ങൾ മറ്റുള്ളവർക്കാണേൽ നമ്മുടെ ആ ഒരു അപ്പം നമ്മൾ വിഷമിച്ചിരിക്കുന്നൊരു സമയത്താണേക്കൂടി നമ്മൾ ഒരു പാട്ടു പാടുമ്പോഴങ്ങനത് മറ്റുള്ളവർക്കു സന്തോഷമാകാനൊരു കാരണമാണങ്ങനെ നമ്മുടെ ഇപ്പോൾ ചില സമയത്തു പാട്ടു പാടുമ്പോൾ നമുക്കു കുറേ ബുദ്ധിമുട്ടൊക്കെ വരുമായിരിക്കും ശ്വാസമെടുക്കുന്നതിനാലും കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിനായാലും കണ്ടിന്യുവസ് പാടുമ്പം നമുക്ക് തൊണ്ടക്കായാലും കുറേ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ വര അപ്പം അങ്ങനത്തേതായ കുറേ മാറ്റങ്ങളൊക്കെയാണ് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നത് പക്ഷെ ഏറ്റവും നല്ല നമുക്ക് സന്തോഷങ്ങൾ സമ്പട സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായാലും പാട്ട് എന്നു പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമുള്ള ഒരിതാണ് അങ്ങ ആ ഒരു പാട്ട് നമ്മൾ ഉള്ളു തുറന്ന് മനസ്സ് ഉള്ളു തുറന്നു പാടുമ്പോൾ ആ കിട്ടുന്നൊരു സന്തോഷമെന്നു പറഞ്ഞതെന്ന് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനിപ്പം ജനങ്ങളായാലും നമ്മുടെ പാട്ട് കേൾക്കാനിരിക്കിപ്പം ഇപ്പം ഒരു നല്ല രീതിയിൽ പാടുന്നൊരു കൊച്ചാണെങ്കിലും അല്ലേ നല്ല രീതിയിൽ പാടുന്നൊരു കുഞ്ഞിൻ്റെ പാട്ടു കേൾക്കാനേതൊരു വ്യക്തിയായാലും ആഗ്രഹിക്കും അപ്പം ആ സമയത്ത് ആ ഓ പാട്ടിൻ്റേതായ രീതികൾ ആ പാട്ട് പാട്ടിൻ്റെ വരികൾ അതിൻ്റർത്ഥ